പാടുമ്പോൾ നമ്മുടെ ഗാനം പോലെ നമ്മുടെ ശബ്ദം പോലെ അത്രയും തന്നെ പ്രധാന്യമുള്ളതാണ് നമ്മുടെ മുഖഭാവങ്ങളും ശരീര ഭാഷയും നമ്മൾ എന്തു പാടുന്നു എന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മുടെ പാട്ടു പോലെ തന്നെ നമ്മുടെ ശരീരഭാഷയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതൊരു പാട്ടാണെങ്കിലും അതിന് അതിൻ്റേതായ ശരീരഭാഷയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വളരെ ഫാസ്റ്റ് ആയി അല്ലെങ്കിൽ ചടുലമായ പാട്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ കാണികളിലേക്ക് അത് എത്തിക്കാൻ നമ്മളും ചടുലമായ ചില ആംഗ്യങ്ങളോ ഭാഷകളോ ശരീരഭാഷയോ കാണിക്കുന്നതിൽ തെറ്റില്ല എന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഒരു താരാട്ടു പാട്ടാണ് പാടുന്നതെങ്കിൽ അതിൻ്റെതായ മിതമായ രീതിയിലുള്ള ശബ്ദവും അതിൻ്റെ ശരീരഭാഷയും അതിനോട് ഇണങ്ങുന്ന ഒരു മുഖഭാവവും ഉണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തും നമ്മൾ ഒരു പാട്ട് ആൾക്കാരിലേക്ക് അവരുമായി ഇൻറ്ററാക്റ്റ് ചെയ്ത് നമ്മൾ അത് അത് പാടാൻ ശ്രമിക്കുക ആണെങ്കിൽ നമ്മുടെ ഗാനം അവരുടെ മനസ്സിലേക്ക് എളുപ്പം കയറും എന്ന് കരുതിയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഒരു നൃത്ത പ്രാധാന്യമുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടുന്നത് എങ്കിൽ അതിൻ്റെ ഇടയിൽ ശബ്ദം മാത്രമുള്ള സമയത്ത് പാട്ടില്ലാത്ത സമയത്ത് ചെറിയ നൃർത്ത ചുവടുകൾ വയ്ക്കുന്നതിലും തെറ്റില്ല എന്നു തോന്നുന്നു ഏതൊരു തരം പാട്ടാണെങ്കിലും അത് കാണികളിലേക്ക് എത്തുക എന്നതാണ് പ്രധാനം അവർ എന്നും അത് ഓർത്തിരിക്കുക അതിനുള്ള നല്ല ഒരു അനുഭവമാക്കി മാറ്റുക എന്നതിനുവേണ്ടി നമ്മുടെ ശരീര ഭാഷയും നമ്മുടെ ആഗ്യങ്ങളും നമ്മുടെ ചെറിയ ചെറിയ ശബ്ദ ശകലങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഗാനാലാപന ശൈലിയെ മെച്ചപ്പെടുത്തുക തന്നെയാണ് ചെയ്യുക വളരെ അടിച്ചു പൊളിയുള്ള ഒരു പാട്ട് അനങ്ങാതെ മിണ്ടാതെ ഒരാൾ നിന്നു പാടുമ്പോൾ അത് എത്ര തന്നെ ഭാവം നമ്മൾ ശബ്ദത്തിൽ കൊടുത്താലും അത് നൂറു ശതമാനം കാണികളിലേക്ക് എത്തില്ല അതുകൊണ്ടു തന്നെ നമ്മൾ എന്തു പാടുന്നു എന്നതു മാത്രമല്ല നമ്മൾ എങ്ങനെ പാടുന്നു എന്നതു കൂടി പ്രാധാന്യം അർഹിക്കുന്നതാണ്